ആ ചില അന്ധവിശ്വാസങ്ങൾ കാരണം രാവിലെ ഇറങ്ങുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തിരിച്ച് കയറരുത് അന്ധവിശ്വാസം അത് എല്ലാ സ്ഥലത്തും ഉണ്ട് എൻ്റെ വീട്ടിൽ പ്രത്യേകിച്ച് ഉണ്ട് കാരണം എൻ്റെ പ്രദേശത്തും ഉണ്ട് കാരണം അതൊരു വലിയ ലക്ഷണം തിരിച്ചു വരുത്തുന്ന എന്തെങ്കിലും ദുരവസ്ഥ അണ് പിന്നെ രാവിലെ കാണുന്ന സ്വപ്നം അത് ഫലിക്കും എന്നുള്ള അന്ധവിശ്വാസം അതൊക്കെ എന്തൊരു അന്ധവിശ്വാസം അതൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിൽ ഉള്ള അന്ധവിശ്വാസങ്ങൾ